എന്തക്കെയാണ് നിങ്ങളുടെ ഹോബി ഹോബിയെ കുറിച്ചൊന്നു പറയാമോ എന്റെ ഹോബിന്ന് പറയാനായിട്ട് കുതിരസവാരി ഉണ്ട്

എൻ്റെ ഏറ്റോം ഇഷ്ടമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്ന് പറയണത് കുതിരസവാരിയാണ് അത് ഞാൻ എൻ സി സിടെ കീഴിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ആർ എൻ വി കേരള സ്ക്വാടറിന്റെ അടിയിലാണ് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത് പിന്നെ ഞാൻ നല്ലോണം വരയ്ക്കും അത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് എനിക്ക് ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഒറ്റ മോൾ ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുവായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്ത ഒരു ഹോബിയാണ് ചിത്രരചനാന്ന് പറയണത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ പരിശീലിച്ച് പരിശീലിച്ച് പരിശീലിക്കാ എന്ന് പറയണത് ഞാൻ സ്വയം പരിശീലിക്കയാണ് അല്ലാതെ വേറെ ക്ലാസ്സസിന് പോവുക അങ്ങനെ ഒന്നും ചെയ്തട്ടില്ല കാരണം കോവിഡിന്റെ സമയത്ത് അങ്ങനെ സാധ്യമല്ലായിരുന്നു യൂട്യൂബ് നോക്കിട്ടും പിൻട്രസ്റ്റ് നോക്കിട്ടും ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ഹോബീസ് ആയിട്ട് ഞാൻ എടുത്ത ഒരു ഹോബിയാണ് ചിത്രരചന അത് ഞാൻ പിന്നെ അതേപോലെ നിർത്തിയിട്ട് ഒന്നുമില്ല അതേപോലെതന്നെ തുടർന്നുകൊണ്ടിരുന്നു ഇപ്പം ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും പിന്നെ നിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ബേസിക് നിറ്റിങ് മാത്രമേ എനിക്ക് പറ്റുള്ളൂ സ്ക്വയർ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്ക്വയർ രൂപത്തിലുള്ള ചതുര രൂപത്തിലുള്ള നിറ്റിയാനേ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ വേറൊന്നും എനിക്ക് പറ്റില്ല പക്ഷേ എന്നാലും അതെനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് സന്തോഷം തരാറുണ്ട് എനിക്ക് അത് ചെയ്യുമ്പോൾ ഇത്തിരി സമാധാനമാണ് അങ്ങനെ അങ്ങനെ എനിക്കൊരു ഹോബി ഉണ്ട് പിന്നെ ഞാൻ ഇടക്കിടക്ക് പാചകം ചെയ്യും സാധാരണ ഞാൻ പാചകം ചെയ്യാറില്ല അടുക്കളേക്കൊന്നും കയറാറില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കുമ്പോഴോ ഞാൻ ചുമ്മാതെ പാചകം ചെയ്യും യൂട്യൂബ് നോക്കി എന്തെലും ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് ഞാനിരുന്ന് കഴിക്കും

ഞാനധികം പാകം പാചകം ചെയ്യാത്തോണ്ട് അവർക്ക് ഇടയ്ക്കിടക്ക് അവർ എപ്പളും നന്നായി അല്ലെങ്കിൽ നീ ഇടയ്ക്കുണ്ടാക്കിയതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുള്ളൂ എന്തെലും പ്രശ്നം പറ്റിയാലും ഇയ്ക്കുണ്ടാക്കുന്നതല്ലേ കുഴപ്പമില്ലന്നെ പറയുള്ളൂ നന്നായാൽ എന്നെ അതുപോലെ പ്രോത്സാഹിപ്പിക്കയും ചെയ്യും ഇനിയെങ്ങാനും എന്റെ ഭക്ഷണം നന്നായില്ലെങ്കിൽ സാരമില്ല അടുത്ത പ്രാവശ്യം നോക്കാന്നേ വീട്ടുകാർ പറയുള്ളൂ അങ്ങനെ അങ്ങനെ എനിക്ക് ഒട്ടനവധി ഹോബിയുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ഓർമ്മയില്ല ഇപ്പോൾ ഓർമ്മയുള്ളത് ഇതൊക്കെയാണ്